ആ കോഴി ഫാമല്ലേ ആ എൻ്റെ പേര് ടോസ്സ്വിനാണ് ഞാൻ ആലപ്പുഴെന്ന് വിളിക്കുവാണ് ആ ആ ഞാൻ ഒരു കോഴി വളർത്താൻ ആയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിന് എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നും അതുങ്ങൾക്ക് കൊടുക്കേണ്ട ഫുഡ് എങ്ങനെയാണ് എങ്ങനെ കെയർ ചെയ്യണം എന്നും എനിക്ക് അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒന്നും അറിയത്തില്ല അപ്പോൾ അതിനെ പറ്റി ഒന്ന് എനിക്കൊന്ന് കൂടുതൽ പറഞ്ഞുതരാൻ സാധിക്കുമോ

ഓ ആ നമുക്ക് ഈ അതങ്ങൾക്കുള്ള തീറ്റ ഉണ്ട് എന്ന് പറഞ്ഞാലോ അപ്പോൾ അത് എങ്ങനത്തെ രീതിലുള്ളതാണ് അത് എങ്ങനെ അളവും കാര്യങ്ങളും ഒക്കെ വല്ലതും ഉണ്ടോ അത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന തരം ഭക്ഷണങ്ങൾ ആണോ അതോ ഓ അത് നമ്മളും മേടിക്കാൻ പ്രത്യേകം അത് ഏത് സ്റ്റോറിലാ മേടിക്കേണ്ടത് അത് ഏതൊക്കെയാണെന്ന് അറിയാനായിട്ട് സാധിക്കുമോ ആ കേട്ടു പറഞ്ഞേര എല്ലേ ഇഞ്ചക്ഷൻ എടുക്കാൻ ആയിട്ട് നമ്മൾ പ്രത്യേകം ഡോക്ടർമാരെ അതിനുവേണ്ടിട്ട് ഇന്ന ദിവസം നോക്കിയിട്ട് വിളിച്ചു വരുത്തണോ അങ്ങനെ ആണോ ചെയ്യുന്നത്

ആ ശരി ഇണങ്ങാൻ പറ്റത്തുള്ളൂ അല്ലേ ആ ശരി ആ ശരി എന്നാൽ താങ്ക് യൂ